നമ്മളിപ്പം പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാടിങ്ങനെ പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഭാഷയിലാണെൽ തന്നെ എന്തായിപ്പം പറയുക കുറെ കുറെ സ്വാധീനങ്ങളുണ്ടായിട്ടുണ്ട് മറ്റ് ഭാഷകള് അതേപോലെത്തന്നെ പുതിയ ടെക്നോളജീസ്സ് അതേപോലെ കുറെ കാര്യങ്ങള് നമ്മുടെ ഭാഷേനെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മള് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോരോ പുതിയ പുതിയ സങ്കൽപ്പങ്ങളും പുതിയ പുതിയ എന്താണ് വാക്കുകളൊക്കെ നമ്മുടെ മലയാള ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മലയാള ഭാഷ സംസാരിക്കുമ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇപ്പം എന്താണ് ഒരു കം ഏയ്ജ് ഗ്യാപ്പ് വരുന്നത് നല്ലത്പോലെ ആണ് ഇപ്പം പണ്ടത്തെ ഒര് കാലത്ത് ആൾക്കാരോട് പുതിയ കാലഘട്ടത്തിലെ ആൾക്കാര് സംസാരിക്കുമ്പോൾ പൊതുവേ നമ്മള് പറയുന്ന പല വാക്കുകളും അവർക്ക് മനസ്സിലാവണം എന്നില്ല അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് വളരെ വളരെ പ്രശ്നായിട്ടത് കാണുന്നുണ്ട് അതേപോലെതന്നെ ഇപ്പം വേറെ രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാര് ഒര് സംസ്ഥാനത്ത് നിന്ന് തന്നെ രണ്ട് അറ്റത്ത് നിൽക്കുന്ന ആൾക്കാര് തമ്മിൽ സംസാരിക്കുമ്പം അവരുടെ അവരുടെ നാട്ടിലെ സംസ്കാരങ്ങളും രീതികളൊക്കെ എന്താണ് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം കാസർകോഡ് ജില്ലയിലെ ഒരാള് മലപ്പുറം കാരനോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് അവര് പറയുന്നത പല വാക്കുകളും നമുക്ക് മനസ്സിലാവില്ല ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ തന്നെ എല്ലം എന്താണ് പല പല വാക്കുകളും അവർക്ക് വേറെവേറെ മീനിങ്ങാണ് അതേപോലെതന്നെ നമ്മള് സംസാരിക്കുമ്പം നമുക്ക് മനസ്സിലാവണം എന്നില്ല അതൊക്കെ മലയാള ഭാഷ നേരിടുന്ന വലിയ പ്രശ്നങ്ങള് തന്നെയാണ് നമ്മുടെ നമ്മള് സംസാരിക്കുമ്പം ഉണ്ടാകുന്ന കുറെ മിസ്റ്റേക്സ് ഉണ്ട് അതേപോലെതന്നെ മറ്റൊര് ഇത് എന്ന് പറയുന്നത് നമ്മള് ഒരു എന്താണ് ഭാഷയിൽ നിന്ന് പഠിച്ച് മലയാളമല്ല നമ്മള് സംസാരിക്കുന്നത് നമ്മളുടെ മറ്റൊരാള് സംസാരിക്കുമ്പം സ്വാധീനിക്കുന്നതും നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങളുവാണ് നമ്മൾ ഈ വേറൊരാളോട് സംസാരിക്കുന്നത് അപ്പം നമ്മള് നമ്മുടെ നാട് വിട്ട് വേറൊര് നാട്ടില് പഠിയ്ക്കാൻ ചെല്ലുമ്പത്തന്നെയാണേലും നമ്മുടെ ഫ്രെണ്ട്സ് എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കുന്നത് അത് നമ്മള് നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ട്കാര് പറയുമ്പൊളാവും നമുക്ക് മനസ്സിലാകുക നമ്മുടെ ലാങ്വേജ് എന്താണ് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മള് പറയുന്നത് അവർക്ക് പലതും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഒരുപാട് വെല്ല് വിളികള് ഉണ്ട് ഇപ്പം നമ്മള് എന്താണ് ഇപ്പം ഒരു ഒൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളിപ്പം മലയാളം ഇംഗ്ലീഷില് ടൈപ് ചെയ്യുന്നുണ്ട് അപ്പം അവര് നമ്മള് മെസേജ് അയക്കുന്നത് വേറൊരാൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മളിപ്പം മലയാളം ഇംഗ്ലീഷില് ടൈപ് ചെയ്യുമ്പം അവര് നമ്മള് എഴുതിയതാവില്ല അവർക്ക് മനസ്സിലാവുണ്ടാവുക അങ്ങനെ കുറെ പ്രശ്നങ്ങള് മലയാള ഭാഷയ്ക്കുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് പല പല സംസ്ഥാനങ്ങളിൽനിന്ന് അവരുടേതായ കൾച്ചറിലവര് സംസാരിക്കുമ്പം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പറ്റില്ല പിന്നത് പോലെതന്നെ ഏയ്ജ് ഗ്യാപ്പ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പം രണ്ടായിരത്തില് ജനിച്ച ഒരാള് തൊള്ളായിരം ലാസ്റ്റ് കാലഘട്ടത്തിൽ താം ജനിച്ച ഒരാളോട് സംസാരിക്കുമ്പം നല്ല വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മലയാള ഭാഷയ്ക്ക് ഉണ്ട്